ഹലോ ആ ഇത് ഗതാഗത ഏജൻസി അല്ലേ ആ ഞാൻ ഇന്നൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ ക്യാബിൽ നിന്ന് മോശമായിട്ടുള്ള ഒരു രീതിയിലാണ് എനിക്ക് ഉണ്ടായിരുന്നത് കാരണം ഈ സമയം കോവിഡിന്റെ ഒരു സമയം ആണിപ്പം അപ്പോൾ പുള്ളി എന്ത് ചെയ്തു മാസ്ക് ഒന്നും ധരിക്കാണ്ട് ആണ് വണ്ടി എടുത്തതും ഡ്രൈവിങിൽ ഡ്രൈവ് ചെയ്തതും അപ്പോൾ മാസ്ക് ധരിക്കാണ്ടും പിന്നെ നമ്മളിപ്പോൾ ബാക്കിൽ ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ മറയ്ക്കണം എന്നാണ് ആ ഫ്രണ്ട് ഭാഗം മറയ്ക്കണം എന്നാണുള്ളത് പുള്ളി മറയ്ക്കാണ്ടൊക്കെയാണ് വണ്ടി ഓടിച്ചത് ആ അതെ അതെ അതെ ആ അല്ല അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം അല്ലേ കാരണം ഈ സമയത്തെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ മാസ്ക് ഇട്ടിട്ട് നടക്കേണ്ടൊരു സമയം ആണ് ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ വേറെ ഒരു യാത്രക്കാർ ഉണ്ടെങ്കിൽ മാസ്ക് ധരിക്കണം എന്നാണല്ലോ പറയുക ആ അതെ അതെ അല്ല അത് അത് ശരിയല്ലല്ലോ ഞാനിത് കംപ്ലയിന്റ് കൊടുക്കാൻ പോകുവാണ് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ പുള്ളിക്ക് രോഗം ഉണ്ടെങ്കിലും ഇപ്പോൾ എനിക്ക് രോഗം ഉണ്ടെങ്കിലും അത് ഞാൻ ചെയ്യുന്നൊരു കുറ്റമാണ് ഇപ്പം ഞാൻ എനിക്ക് രോഗം ഉണ്ടായിട്ട് ഞാനിപ്പൊ ഞാനിപ്പോൾ എവിടെ നിന്നൊക്കെ വരുന്ന ഒരാളാണ് അപ്പോൾ പുള്ളി മാസ്ക് ധരിച്ചാലാണ് പുള്ളിക്ക് ഇതുണ്ടാവുക അല്ലെങ്കിൽ പുള്ളി ഇപ്പോൾ എവിടെ നിന്നൊക്കെ വരുന്ന ഒരാളാണ് അഥവാ പുള്ളിക്കാണ് ഉണ്ടെങ്കിൽ എനിക്ക് പകരും അപ്പം രാജ്യദ്രോഹ കുറ്റമാണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല പിന്നെ അതിന്റെ സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വൃത്തിഹീനമായിട്ടുള്ള സീറ്റ് ആണ് ഈ സമയത്ത് സീറ്റ് ഒക്കെ വൃത്തിയാക്കേണ്ടത് അവരുടെ കടമയാണ് വണ്ടി നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുനടക്കണം ഒന്നല്ലെങ്കിൽ ഒരു ആൾക്കാരെ കയറ്റുന്നൊരു വണ്ടിയല്ലേ അതെ പക്ഷേ മാസ്ക് ധരിക്കാത്തതിലും സീറ്റ് വൃത്തിഹീനമായുള്ള സീറ്റ് ആണ് എനിക്കതിനകത്ത് മര്യാദയ്ക്ക് ഇരിക്കാൻ പോലും പറ്റിയില്ല ഫുൾ ചെളിയും അതും ഇതും ഒക്കെയാണ് വണ്ടിയിൽ മൊത്തം അയ്യോ എനിക്ക് ഇതേവരെ യാത്ര ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു അനുഭവം വേറെ ഉണ്ടായിട്ടില്ല അതെ ആ ആ ഓക്കെ ആ പക്ഷേ ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ എനിക്കിങ്ങനെ യാത്ര ചെയ്യാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്ന് മാസ്ക് ധരിക്കുവേം ഇല്ല വണ്ടി തീരെ വൃത്തിയില്ല ഇരിക്കുന്ന സീറ്റ് ഒക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് പറയുക വെറും വൃത്തികേടായിട്ടുള്ളൊരു സീറ്റ് ആണ് ആ ഓക്കെ ഞാൻ ഞാൻ എന്തായാലും ഇതിന് പരാതിപ്പെടാൻ പോവുവാണ് കാരണം എന്താണ് വെച്ചുകഴിഞ്ഞാൽ എനിക്കതിൽ നിന്നും മോശയിട്ടുള്ളൊരു അനുഭവം ആണ് ഉണ്ടായത് മാസ്ക് ഇടാണ്ട് ഇരിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ നമ്മൾ വണ്ടികളിലൊക്കെ മാസ്ക് യൂസ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇവർ എന്താണ് പറയുക ഈ പുള്ളി മാസ്ക് ഇട്ടിട്ടില്ല അത് കാരണം ഞാൻ എന്തായാലും പരാതിപ്പെടാൻ പോവുകയാണ്